നിങ്ങൾ സ്വന്തമായി ദൂരദർശ്ശിനി ടെലസ്കോപ്പ് നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ടെലസ്കോപ്പ് നിർമിക്കാനുള്ള സങ്കീർണതകൾ ഒരു ഫാക്റ്ററാണ് അതായത് ഉദാഹരണത്തിന് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ലെൻസുകൾ പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് വേണ്ട പൈപ്പ് മറ്റു കാര്യങ്ങൾ പിന്നെ സെൻസറുകൾ അപ്പോള് ഇതൊക്ക അത്യാവശ്യം വളരെ വിലമതിക്കുന്ന സാധനങ്ങളാണ് അപ്പോള് ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു പിന്നെ ടെലസ്കോപ്പുകളായ സ്പേസ് ടെലസ്സോപ്പുകളായ ജെയിൻസ്വെബ് ഇപ്പോള് അവസാനം നാസ ലോൻഞ്ചെയ്ത ജെയിൻസ്വെബ് പിന്നെ പണ്ട് തൊട്ടേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹബ്ബിൾ സ്പേസ് ടെലസ്കോപ്പ് എന്നിവയുടെ എന്നിവ പകർത്തുന്ന ചിത്രങ്ങളുമെല്ലാം മുടങ്ങാതെ കാണുന്നുണ്ട് ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട് പിന്നെ ജെയിംസ്വെബിൻ്റെ സൂപ്പർ വെബെന്നും പറഞ്ഞ് അടുത്തൊരു ടെലസ്കോപ്പ് ലാഞ്ചെയ്യാൻ പോകുന്നതിനെപ്പറ്റി അതിനെ ഈഗറായിട്ട് വെയ്റ്റേതോണ്ടിരിക്കുകയാണ്